ഇപ്പോൾ പുതിയ ജനറേഷൻ എല്ലാവരും ഇൻറർനെറ്റിൻ്റെ മേലെ ഇരിക്കുന്ന സമയത്ത് അധികവും കുറെ കുട്ടികളൊന്നും പുറത്തിറങ്ങി കളിക്കാൻ ഒന്നും പോകാറില്ല അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ഗ്രൗണ്ടിലും കുറെ കുട്ടികൾ വീടിൻ്റെ അടുത്തുള്ളത് ഓടി വന്നിട്ട് ഫുട് ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് ഏറു പന്ത് മുതൽ ചക്രം ഉരുട്ടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് അങ്ങനെ അധികം ചെയ്യുന്നതായിട്ട് ഒന്നും കാണാൻ പറ്റാറില്ല ഇപ്പോൾ എല്ലാതും ഈസിലി അവൈലബിൾ ആയിട്ട് അവരുടെ കയ്യിൻ്റടുത്തു തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ ഫോണിൻ്റെ അഡിക്ഷനിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കും എല്ലാവരും ഫോണിലും ക് കുത്തിയിട്ട് കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് അവരിപ്പോൾ ചെയ്യാറ് അപ്പോൾ വീടിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാനുള്ള സാധ്യതകൾ ഹൈ ആണ് അവർക്ക് എന്താ കണ്ണിന് എന്തെങ്കിലും പറ്റാനുള്ള സാധ്യതകളും മൈഗ്രൈൻ അല്ലെങ്കിൽ തലവേദനകൾ അങ്ങനത്തെയൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതിൻ്റെ അപ്പുറം അവർക്ക് വേറെ അസുഖങ്ങൾ എന്താ വെയിൽ കൊള്ളാഞ്ഞിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ പിന്നെ എന്താ കയ്യും കാലും വലിയ രീതിയിൽ അനക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ അവരുടെ പൊതുവെ അവരുടെ സ്റ്റാമിന ഒക്കെ കുറയുമ്പം അങ്ങനത്തെ അസുഖങ്ങൾ ഒക്കെ അവർക്ക് നേരിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്